ഈ സ്റ്റാമ്പുകളെ കുറിച്ച് നാണയങ്ങളെ കുറിച്ചുവൊക്കെ ഒരു ഹോബിയായിട്ട് വന്നതെന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ നോട്ടുകളിൽ ഉള്ള ഒരു ഇത് വെച്ചാണ് പിന്നെ സ്കൂളിലേക്ക പഠിക്കുന്ന കാലത്ത് സ്റ്റാമ്പ് ശേഖരണം ഉണ്ടായിരുന്നു അത് അധികം കാലം സ്കൂളിൽ പഠിച്ചിട്ടില്ല എങ്കിലും ആ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ ഇടപെട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ശേഖരിക്കുവായിരുന്നു അങ്ങനെ ബുക്ക് ബുക്കയിൻ്റെ പേപ്പറേലക്കെ ഒട്ടിച്ച് പിന്നെ കല്ലുകൾ ശേഖരിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദി കല്ലുകളോ കല്ലുകൾ ശേഖരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഈ കല്ലുപണീനെ കുറിച്ച് ഒരു ഇത് ഹോബി ഉണ്ടായിരുന്നു കല്ലു പണി കല്ലിൻ്റെ പണികൾ ധാരാളം നാളുകൾ ചെറുപ്പം മുതൽ ചെയ്യുവായിരുന്നു ഈ കല്ലുപണി ചെയ്യുകാന്ന് പറഞ്ഞാൽ മേസ്തിരീ ഇടെ മാരുടെ കൂടെയൊക്ക നിന്ന് ചെയ്തു അങ്ങനെ കുറെ നാളായപ്പോൾ പിന്നെ കുറെ എല്ലാം തന്നെ ചെയ്യാൻ പഠിച്ചു ഈ അതിനോടുള്ള ഹോ പിന്നെയതൊരു ഹോബിയായിട്ട് കയ്യിൽ കിട്ടുന്ന ഏത് കല്ലു കിട്ടിയാലും അത് നിലവിൽ ഏതൊരു കയ്യ ഒരു ഒരു കുറച്ച് കല്ലുകൾ കെടക്കുക്കാണേൽ അത് പെറുക്കി ഞാന് അതൊരു കയ്യാലയായിട്ട് വെക്കാറുണ്ട് നിലവിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഹോബികളൊണ്ട് പിന്നെ ഹോബി ഏത് പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹോബി വണ്ടീ ഓടിക്കൽ ഒരു ഹോബിയായിരുന്നു നിലവിലെ വണ്ടി ഓടിക്കുന്നത് ഞാൻ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് പഠിച്ചു നിലവിൽ ഇപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ട് ഇപ്പോൾ ടൂ വീലറുണ്ട് ഫോറുണ്ട് ഇതൊക്കെ ഓടിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ഹോബിയാ ടൂ വീലറുകളെലൊക്കെ പോകുന്നതൊരു ഹോബിയാണ് അല്ലാതെ നമ്മുടെ ഒരു പ്രായം ഏത് പ്രായത്തിലും ഇത് ചെയ്യാം എന്നാണ് എനിക്ക് ഇപ്പോൾ പത്ത് അറുപത്ത് വയസ്സായിട്ടുണ്ട് എന്നാലും നമുക്ക് അത് ഇപ്പോഴും നൽ അത്യാവശ്യം ലോങ്ങൊക്കെ പോകുന്നുണ്ട് അതൊരു ഹോബിയാണ് അല്ലാതെ ഇതിനോട് ഉള്ള ഒരു താല്പര്യം കൊണ്ടാ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോകുയേല്ലല്ലോ നിലവിൽ എല്ലാ വാഹനം ഓടിക്കുന്നതിനോടൊരു ഹോബിയായിട്ട് വന്നിട്ടുണ്ടത് എൻ്റെ ചെറുപ്പം മുതലുള്ളയൊരു കാര്യമാണ് അപ്പം ചിലപ്പം ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്ത് മുതൽ ഈ വാഹനത്തിലൊക്കെ കയറുന്ന സമയത്ത് ഈ വണ്ടീടെ സൈഡിൽ പിന്നെ വണ്ടിയേലിരുന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അങ്ങനെ ശ്രദ്ധിക്കുന്നത് ഡ്രൈവറുടടുത്തിരുന്ന ശ്രദ്ധിക്കുക ഡ്രൈവറ് ചെയ്യുന്ന എന്താണ് അങ്ങനെയൊക്കെ നോക്കി നമ്മൾ ഇങ്ങനെ ഓരോരു ഓരോ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഒരു വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ചൊരു ഹോബിയായി അങ്ങ് പഠിക്കണം പഠിക്കണം അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിരിക്കുവായിരുന്നു അങ്ങനെയാണീ വണ്ടിപ്പണിയോട് താല്പര്യം വന്നത് വണ്ടി ഏത് വണ്ടിയും ഓടിക്കും എല്ലാ വണ്ടിയോടിക്കൂന്ന് പറഞ്ഞാൽ ചെറു വണ്ടികളാട്ടോ വലിയ വണ്ടിയല്ല അത്യാവശ്യം ചെറിയ വണ്ടികളക്കെ ഓടിക്കും ഈ പ്രായത്തിൽ നമുക്ക് പേടിയൊന്നുവില്ല അതൊരാ അതിനോടുള്ളയാ അതുകൊണ്ടാണ് ഹോബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചിത്രപ്പണികളൊക്കെ ചെയ്യുന്നതിനൊക്കെ നല്ല ഹോബിയുള്ളയാളാ നിലവിൽ ഓരോ ദിവസവും പിന്നെ നമുക്ക് ഓരോ ഓരോ കാര്യങ്ങളിൽ ഹോബിയാ രാവിലെ എഴുന്നേൽക്കുമ്പം ഇന്നിന്നപോൽ ഇന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്തേക്കാം അങ്ങനങ്ങു ചെയ്യും അതൊരു ഹോബിയായിട്ടങ്ങെടുക്കാ ഇന്ന് ഇന്ന കാര്യങ്ങൾ ഏത് കാര്യമാണോ ആലോചിക്കുന്നത് രാവിലെ എന്നാ ഇന്നത് ചെയ്യാം അതൊരു ഹോബിയായിട്ടാ ഞാൻ കണക്കാക്കുന്നത് ഏത് പണിക്കിറങ്ങിയാലും അതൊരു ഹോബിയായിട്ട് കണക്കാക്കുന്നയാളാണ് ഞാൻ നിലവിൽ ഹോബിയായിട്ടാണ് ഞാൻ ആത് ചെയ്യാറ് വണ്ടിപ്പണി ഒരു ഹോബിയാണ് പിന്നെ കല്ലുകളി ഒരു ഹോബിയാണ് സ്റ്റാമ്പ് എന്ന് പറയുന്നത് നോട്ട് കളിലക്കെ കണ്ട് അങ്ങനെ നോട്ടുകളെ കണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാറ് ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ സ്റ്റാമ്പൊക്കെ ഒട്ടിക്കുന്നത് പടിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനൊക്കെ ചെയ്താണ് ഈ സ്റ്റാമ്പിനോട് താല്പര്യം വന്നത് ഏതായാലും ഈ ഒരു ഹോബി ഇതൊക്കെയാണ് ശേഖരിക്കാ കല്ലുകൾ ശേഖരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കല്ലുകൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഇട്ട് കിടക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ അത് ഞാൻ ഒരു കയ്യാല രീതിക്ക് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നിലവിൾ അതൊരു ഹോബി ആയിട്ട് അങ്ങനെ എടുക്കുന്നു ഏതായാലും ഫുൾ നിലവിൽ അതാണ് നമ്മുടെ ഹോബി ഹോബിയെക്കുറിച്ച് പറയുമ്പം ഹോബി ഇതൊക്കെയുള്ളു വേറെ ഹോബിയൊന്നുല്ല ഇങ്ങനിരിക്കുന്നു അതെത് ഹോബി അതാണ് നിലവിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളതാണ് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത് അതിനെക്കുറിച്ചാണ് എനിക്കിത്രേ പറയാനുള്ളത് നിലവിൽ ഓക്കേ